അതേല്ലോ ആ ആ ആ ആ ആ അത് ഇവിടെ ഇപ്പമ നമ്മൾ പലതരം തെങ്ങുണ്ട് ഇവിടെ ഈ ചോ ഒരുതരം മഞ്ഞ തേങ്ങ ഉള്ള തെങ്ങുണ്ട് അതിന് ഗൗളിപാത്രം എന്നൊക്കെ പറയുന്ന ഒരെണ്ണമുണ്ട് പിന്നെ നാടൻ തെങ്ങുണ്ട് ഏ അത് പച്ച ആണ് അതിന്റെ തേങ്ങ പിന്നെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് വർഷം എടുക്കും ഇത് കായ ഫലം ഉണ്ടാകാനായിട്ട് പിന്നെ ഇതിന്റെ വളരീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവവളം കൊടുക്കാം പിന്നെ ചെറിയ അളവിൽ രാസവളം കൊടുക്കാം പിന്നെ ഇതിന്റെ ഏഴ് വർഷം ആ കഴിഞ്ഞാൽ ഇത് കായ്ക്കും കായ്ച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടിനീരായിട്ട് ഉപയോഗിക്കാം കരിക്ക് എന്ന് പറയും ഇത് കുടിനീരായിട്ട് ഉപയോഗിക്കാം പിന്നെ മറ്റു തേങ്ങ അത് കറിക്കൊക്കെ ഉപയോഗിക്കാം തേങ്ങാപ്പീരയൊക്കെ ആക്കിയിട്ട് കറിക്ക് ഉപയോഗിക്കാം പിന്നെ തേങ്ങാപ്പാൽ എടുക്കാം പിന്നെ ഇത് ഇത് കൊപ്ര ആക്കി വെളിച്ചെണ്ണ എടുക്കാം പിന്നെ അതിന്റെ ഇത് പ്രോഡക്റ്റ് ആയിട്ട് കൊപ്ര പിണ്ണാക്ക് കിട്ടും തേങ്ങാപ്പിണ്ണാക്ക് എന്ന് പറയും അത് കിട്ടും പിന്നെ ഓ ഉപദേശം മാത്രമേ ഉള്ളൂ സഹായം ഒന്നുമില്ല ഏ ഉപദേശം മാത്രം ഫ്രീ ആയിട്ട് കിട്ടും ഉപദേശം മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് പിന്നെ ഇതിന്റെ ഓല നമുക്ക് ഈർക്കിലി എടുത്തിട്ട് തൂക്കാനൊക്കെ പറ്റും അതായത് റൂം ബ്രഷ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ പിന്നെ അതൊക്കെ ചെയ്യാം ഉം അത് മൂല്യവർധ്യത മൂല്യവർധ്യത ഇതുവായിട്ട് നമ്മൾ ഇതുണ്ടാക്കി എടുത്തിട്ട് കയറ്റി അയയ്ക്കാം അതായത് തേങ്ങ തേങ്ങാപ്പീര സംസ്കരിച്ച് തേങ്ങാപ്പീര അയയ്ക്കാം തേങ്ങാപ്പാൽ ഉണ്ടാക്കാം അതെ അതെ പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം പിന്നെ ഇതിന്റെ തടി ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം ഈ തെങ്ങിന്റെ തടി ഏ പിന്നെ അത് പിന്നെ പാടശേഖരത്തിന്റെ കൃഷിക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ ഏ ബ്മ്മാനാ വീട് ഇടിഞ്ഞു പോകാതിരിക്കാൻ സൈഡിൽ തെങ്ങ് വട്ടമിട്ടിട്ട് തെങ്ങുംകുറ്റികൊണ്ട് അടിച്ച് വരമ്പ് കുത്തുകയോ വീട് കുത്തുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ നിരവധി ഉപയോഗങ്ങളുണ്ട് ഇതിനെ ഇതുകൊണ്ട് എല്ലാ തരത്തിലും ഒരു നല്ല ഒരു പ്രോഡക്റ്റ് ആണിത് ഓക്കെ താങ്ക് യു തീർച്ചയായിട്ടും ഓക്കെ